ഇപ്പോൾ സ്കൂളുകളിൽ നടക്കുന്ന ഓരോ കായികമായിട്ടുള്ള മത്സരങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ പൊതുവെ കാണുന്നതാണ് കാരണം നമ്മൾ കായികപരമായിട്ടും അല്ലാതെ അല്ലാതെയാണെങ്കിലും നമ്മൾ കുറേ സ്പോർട്സ് കാര്യങ്ങളെല്ലാം നമ്മൾ പുറമെ നമ്മൾ കാണുന്നതാണ് കാരണം നമ്മൾ സ്പോർട് ആൻ്റ് ആക്ടിവിറ്റീസൊക്കെ അതായത് കൂടുതലും സ്കൂളുകളിൽ നമ്മൾ ഓട്ടം ചാട്ടം സ്കിപ്പിങ് പിന്നെ സ്കിപ്പിങ്ങുണ്ട് അതായത് നമ്മൾ പിന്നെ അതല്ലാതെ നമ്മൾ കളിക്കുന്ന ഗെയിമുകളൊക്കെയാണെങ്കിൽ ഫുട്ബോള് ക്രിക്കറ്റ് അങ്ങനെ ഓരോ നിരവധി ഗെയിമുകൾ നമ്മൾ കാണാറുണ്ട് കാരണം നമ്മൾ അതൊക്കെ നമ്മൾക്ക് കൂടുതലും കുട്ടികൾക്ക് ഓരോരോ പ്രചോദനമാകുന്ന ഓരോ കാര്യങ്ങളാണ് കാരണം ഇപ്പം എന്താ പറയുന്നത് ഇപ്പം നമുക്ക് കൂടുതലും നമ്മൾ കുട്ടികളൊക്കെ ആണെങ്കിലും ഈ ഓരോ കാര്യത്തിൽ ഏർപ്പെടുമ്പം നമുക്ക് കൂടുതൽ ഗുണങ്ങളും കാര്യങ്ങളുമുണ്ട് കാരണം എന്നു വെച്ചാൽ അവരുടെ ശരീരം ആണെങ്കിൽ ശരീരം കുറച്ചും കൂടി ഒരു എനർജെറ്റിക്കാവുകയും ഒരു നല്ലൊരു രീതിയിലേക്ക് ആവുകയും പിന്നെ അവർക്കൊരു സ്പോർട്സും കാര്യങ്ങളെല്ലാം വന്നു കഴിയുമ്പം നമുക്ക് കായികപരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും നമുക്ക് കുട്ടികൾക്ക് ഗുണങ്ങൾ ഉണ്ട് കാരണം ഇങ്ങനെയൊക്കെ ചെയ്താലേ ഉള്ളൂ കുട്ടികളുടെ നമ്മൾ നമ്മൾ വിദ്യാഭ്യാസം മാത്രം നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ കുറച്ച് അറിവ് നേടുക എന്നുള്ള കാര്യം നമ്മൾ ശരീരം കുറച്ചും കൂടി പുഷ്ടിപ്പെടുകയും കാര്യങ്ങളെല്ലാം വേണം അതുപോലെ തന്നെ നല്ല പോഷകാഹാരം കഴിക്കണം പിന്നെ നമ്മൾ കൂടുതലും ഗെയിംസ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നത് പിന്നെ കായികപരമായിട്ടുള്ള കുറേ ഓട്ടമത്സരം ചാട്ടം പിന്നെ ചാടുക പിന്നെ സ്കിപ്പിങ് പിന്നെ ക്രിക്കറ്റ് അങ്ങനെ കുറേ ഗെയിമുകൾ നമുക്ക് നിരവധിയായിട്ടുള്ള കളികൾ കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ ഓരോ കായികപരമായി ഒരോ ഗെയിമുകളിൽ ഓരോ ആൾക്കാർ ഉൾപ്പെടുമ്പോഴാണ് അതിനകത്തൊരു വ്യക്തത ഉണ്ടാകുന്നത് കാരണം നമ്മൾ സ്കൂളുകളിൽ നമ്മൾ നിരവധി കാണുന്നതാണ് ഈ സ്കൂൾ ഗ്രൗണ്ടിലോരോ പരിപാടി പരിപാടികൾ പിന്നെ ആഴ്ച്ചയിൽ രണ്ടു ദിവസം അവർക്ക് നമുക്ക് ഈ പറയുന്നതുപോലെ ഗ്രൗണ്ടിലിറങ്ങി കളിക്കാനുള്ളൊരവസരം പിന്നെ കുറേ ഗുണങ്ങൾ അതിനകത്തുണ്ട് കാരണം നമുക്ക് ഓരോ കുട്ടികളുടെ മാറ്റങ്ങൾ നമുക്കതിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാവും കാരണം നമുക്ക് ഓരോ നീക്കങ്ങൾ നമുക്ക് കുട്ടികളുടെ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമ്മുക്ക് ഈ ഒരോ നീക്കങ്ങളിലൂടെ നമുക്ക് നല്ലൊരു വ്യക്തത കിട്ടും കാരണം ഈ കായികപരമായിട്ടുള്ള നീക്കങ്ങളെപ്പറ്റി നമ്മളൊരു മൊത്തത്തിലൊരു അവലോകനം നോക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റം കുട്ടികളുടെ സംസാര രീതികളിലാണെങ്കിലും ശരീര പ്രകൃതിയിലാണെങ്കിലും നമുക്ക് മനസ്സിലാകുന്നതാണ് കാരണം ഈ ഓരോ അവസരങ്ങൾ കുട്ടികൾ ഇത് അതായത് ഈ സ്പോർട്സായിട്ടുള്ള കായികപരമായ ഓരോ കാര്യങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടുമ്പോഴാണ് അവരുടെ ഓരോ കാര്യങ്ങളിലവർക്കൊരു ഒരു അവരുടെ നീക്കങ്ങളാണെങ്കിലും അവരുടെ ഒരു പ്രവർത്തന രീതികളാണെങ്കിലും കുറച്ച് കൂടി പുഷ്ടിപ്പെടുകയും കാര്യങ്ങളെല്ലാം നടക്കുകയും എല്ലാം ചെയ്യുന്നത് എന്നു നമ്മൾ പറയുന്നത് എത്രത്തോളം നമുക്ക് വ്യക്തമാകുന്നുണ്ട് എന്നെനിക്കറിയില്ല പക്ഷെ ഇതുപോലെയുള്ള അവസരങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുകയും അവരുടെ ശരീരത്തുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാവുകയും

അത് അതുപോലെതന്നെ തൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാകുകയും അപ്പം നീക്കങ്ങൾ ഉപയോഗിക്കുകയും വേണം ഏഹ് കാരണം നമ്മൾ നമ്മൾ കാണുന്ന മാറ്റങ്ങളെപ്പറ്റി ഒരു ഒരു തിരിച്ചറിവ് വേണം കാരണം നമുക്ക് ഇതിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾ നമുക്ക് കുട്ടികളിൽ കാണാൻ കഴിയുന്നതാണ്